എനിക്ക് വളർത്തുമൃഗങ്ങളെ ഇഷ്ടമല്ല കാരണം എന്താ വെച്ചാൽ അതിനെ പരിപാലിക്കലും അതിൻ്റെ പിന്നാലെ നടക്കലും അതിൻ്റെ കാര്യങ്ങൾ എല്ലാം നോക്കികൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സമയം വളരെ അധികം നഷ്ടപ്പെടും അതുകൊണ്ട് എനിക്ക് വളർത്തുമൃഗങ്ങളെ വളർത്തുന്നത് എനിക്കിഷ്ടമല്ല